ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആരാണ് വിളിക്കുന്നത് ആ ആ ആ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലേ ഗുളിക കുടിച്ചിരുന്നോ ആ എത്ര നേരം ആ ആ തലവേദനയൊക്കെ അല്ലേ അപ്പം ഒന്നും കുറവില്ലല്ലേ തൊണ്ടവേദന ഉണ്ടോ ആ ആ അല്ല തണുത്ത വെള്ളം കുടിക്കേണ്ട പനിയല്ലേ പിന്നെ തണുത്ത വെള്ളം കുടിക്കലില്ലല്ലോ പിന്നെ ആരെങ്കിലും വീട്ടിൽ ആർക്കെങ്കിലും പനി ഉണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും പനി ഉള്ള ആരോടെങ്കിലും എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു എന്നാ ചിലപ്പം വൈറൽ ഫീവർ ആയിരിക്കും ഇപ്പം പിന്നെ ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യന്റ്സ് ഉണ്ട് പനിയായിട്ട് വൈറൽ ഫീവർ ആയിട്ട് അപ്പം എല്ലാവർക്കും പനിയാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ പനി ഉള്ള ആരുമായിട്ടൊന്നും അങ്ങനെ പോകരുതായിരുന്നു ഇനി ഇപ്പം വീട്ടിൽ ഇനി ഇപ്പം എല്ലാവർക്കും ചിലപ്പം വരും വരാൻ ചാൻസ് ഉണ്ട് വീട്ടിൽ എല്ലാവർക്കും വൈറൽ ഫീവർ ആണ് അപ്പം പിന്നെ തൊണ്ടവേദനയാണെന്ന് എല്ലാവരും പറയുന്നത് അതാണ് തൊണ്ടവേദന ഉണ്ടോ എന്ന് ചോദിച്ചത് ചെറുതായിട്ട് ഇങ്ങനെ എങ്ങാനും ഉണ്ടോ തൊണ്ടവേദന ആ ആ എന്നാൽ ഞാൻ പിന്നെ മരുന്ന് നിങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം കുറവില്ലല്ലോ അപ്പം എന്തായാലും മരുന്ന് എഴുതിത്തരാം ഓ നിങ്ങൾ നാളെത്തന്നെ വന്നോ എന്നാലല്ലേ പെട്ടെന്ന് മാറേണ്ടേ കാണിച്ചിട്ടും ഇല്ലല്ലോ ഇതുവരെ അപ്പം എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരേണ്ടി വരും പിന്നെ നാന്നായിട്ട് ആവി പിടിച്ചോ ജലദോ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ആവി പിടിക്കണം പിന്നെ അതുപോലെ വെള്ളം കുടിക്കണം നന്നായിട്ട് റെസ്റ്റും എടുക്കണം മേല് ആ മേലും കയ്യൊക്കെ വേദന ഉണ്ടാവും ഈ പനിക്ക് അപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം എന്നാലേ കുറയുള്ളൂ പനി പിന്നെ കൂടുകയും കുറയുകയും ഇപ്പം നിങ്ങൾക്ക് കൂടുക ഇപ്പം പനി ഗുളിക കുടിക്കുമ്പം കുറയുന്നില്ലേ എന്നിട്ടല്ലേ കൂടുന്നത് ആ അപ്പം ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് പനിക്കും അത് വൈറൽ ഫീവറിന് ഇങ്ങനെയാണ് അപ്പം അതുകൊണ്ട് പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം എന്നാലേ നന്നായിട്ട് കുറയുള്ളൂ നിങ്ങൾ നാളെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരേണ്ടി വരും ഒന്ന് കാണിക്കണം ആ പിന്നെ ഒരാഴ്ച്ച എന്തായാലും ഒരു അഞ്ച് ദിവസത്തേക്ക് ഗുളിക എഴുതേണ്ടി വരും അപ്പം എന്തായാലും ഒന്ന് വരണം പിന്ന വൈറ്റമിൻ്റെ ഗുളിക എഴുതേണ്ടി വരും പിന്നെ ഈ പനിക്കിപ്പം നന്നായിട്ട് ക്ഷീണം ഉണ്ടാവും അതുകൊണ്ട് തന്നെ പിന്നെ കാൽസ്യത്തിൻ്റെ ഒക്കെ ഗുളിക കുടിക്കണം അപ്പം അതൊക്കെ ഒന്ന് എഴുതിത്തരണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരേണ്ടി വരും ആ നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടോ നാളെ വരുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുന്നുണ്ടോ ആ എന്നാൽ നാളെ ആ നാളെ രാവിലെ വിളിച്ചാൽ മതി ആ ആ തരാം ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുന്നേ ഒന്ന് വിളിച്ചൊന്ന് ബുക്ക് ചെയ്തിട്ട് വന്നാൽ പിന്നെ പെട്ടെന്ന് കാണിച്ചിട്ട് പോവാം അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും അപ്പം പെട്ടെന്ന് തന്നെ കാണിക്കാൻ പറ്റില്ല കുറേ സമയം നിൽക്കേണ്ടി വരും അപ്പം വേഗം കാണിച്ചിട്ട് പോവാം മ് പിന്നെ മറ്റുള്ളവരോട് ഒന്ന് പറയണം വീട്ടിലുള്ള ആൾക്കാരോട് പനി വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പുറത്തൊന്നും പോകരുതെന്ന് പറയണം വേറെ ഒരാൾക്ക് വരുത്തണ്ടല്ലോ അപ്പോൾ വീട്ടിൽ ആ ശ്രദ്ധിക്കാൻ പറയണം ആ എന്നാൽ നിങ്ങൾ നാളെ ഒന്ന് ഇങ്ങോട്ട് വന്നോളൂ ആ ആ ശരി